ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി അതായത് ഉണ്ടാക്കുന്ന ആരോഗ്യപൂർണ്ണമായിട്ടുള്ള കുറച്ചു വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മൈനായിട്ട് നമുക്ക് പറയാം ചോറ് ഞങ്ങൾക്കിവിടെ കൃഷിയാണ് നെൽകൃഷിയുണ്ട് അപ്പം ഞങ്ങൾക്ക് അതിൽ നിന്ന് തന്നെയാണ് അരിയും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ നെല്ല് കൊണ്ട് കുത്തിച്ചിട്ടാണ് പിന്നെ അരിയൊക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറി കൃഷി അതായത് തക്കാളി വഴുതന അങ്ങനെയുള്ള കുറച്ച് പച്ചക്കറി കൃഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഈ കൃഷിയിൽ നിന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് അതായത് വളമില്ലാത്ത വാഴക്കുല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം അതായത് ഞങ്ങൾ കഴിക്കുന്ന ഫുഡ്ഡോക്കെ അത്യാവശ്യം നല്ല പിന്നെ ജൈവവളമൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫുഡ് തന്നെയാണ് പിന്നെ നമുക്ക് മസാലപ്പൊടി കാര്യങ്ങളൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിപൊടി മുളക്പൊടി അങ്ങനെയുള്ളതൊക്കെ ഞങ്ങള് പൊടിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ബാക്കി ചിക്കൻ മസാല അങ്ങനെയുള്ളതൊക്കെ മാത്രമേ പുറത്ത് നിന്നൊക്കെ മേടിക്കാറുള്ളൂ പിന്നെ അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും കഴിക്കുന്നത് ആരും അങ്ങനെ വേറെ ഫുഡുകളും കാര്യങ്ങളൊന്നും ഇപ്പോൾ പുട്ടുപൊടിയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊടിച്ചിട്ട് പിന്നെ ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ നല്ല ആരോഗ്യപൂർണമായ ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്